ഞാൻ ഇതുവരേ പരീക്ഷിച്ചു നോക്കിയതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പാചകവിധി ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ഉണ്ടാക്കിയ പുട്ടായിരുന്നു അതിന് ആരും വീട്ടിലില്ലാതിരുന്നതിനാൽ ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ എല്ലാം മേൽനോട്ടങ്ങളും വഹിച്ചിരുന്നത് അപ്പോൾ അവിടെ ലഭ്യമായിരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ തേങ്ങ ചിരകുകയും അതിനുവേണ്ട ബാക്കി സാമഗ്രികൾ സംഭരിക്കുകയും ചെയ്തു